നമ്മളുടെ സമൂഹത്തിൽ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എതിർ അഭിപ്രായമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കുട്ടികളെല്ലാം ആയി കഴിഞ്ഞാൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് മുതിർന്നവരൊക്കെ പറയും കുട്ടികളായില്ലേ കുട്ടിക്കൾക്ക് തണുപ്പ് പിടിക്കും അങ്ങനെ ഇങ്ങനെ പിന്നെ ഓരോ അറിയാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോൾ അറിയാത്ത സ്ഥലങ്ങളല്ലേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ നടക്കുന്നതല്ലേ ഇങ്ങനെ പീഡി പീഡനം അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നതല്ലേ പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് അനുഭവിക്കുന്നത് ഓരോന്ന് കേൾക്കുന്നത് കാണുന്നതല്ലേ അങ്ങനെയെല്ലാം കേൾക്കലുണ്ട് പിന്നെ നമ്മളിപ്പോൾ എല്ലാരെയും എല്ലാവരും ഒരുമിച്ച് കൂടി പോകുന്നത് ഒക്കെ ആണെങ്കിൽ കുഴപ്പില്ല പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കലുണ്ട് അല്ലാണ്ടങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നാലും വിടും കുഴപ്പമൊന്നുമില്ല